ഞാൻ എൻ്റെ സ്റ്റെപ്പ് അനുസരിച്ചുള്ള സ്റ്റെ ഡാൻസ് കളിക്കാനും പാട്ടാണ് ചൂസ് ചെയ്യുക ഇപ്പോൾ ഞാൻ വേസ്റ്റേൺ ആണ് കളിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ നല്ല ഇംഗ്ലീഷ് നല്ല പ അർത്ഥം ഉള്ള നല്ല മീനിങ്ങ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് പാട്ടെടുത്ത് അതിനു ചേരുന്ന സ്റ്റെപ്സ് ഇട്ട് ഞാൻ ഡാൻസ് കളിക്കും ഇനി നല്ല നാടൻ സ്റ്റൈൽ ആണ് കളിക്കുന്നതെങ്കിൽ നാടൻ പാട്ടുകളിട്ട് അത് ട്രൈ ചെയ്യും അങ്ങനെ നാ നമുക്ക് കംഫോർട്ട് എന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ നല്ല സുഖം ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടാണ് ഞാനെപ്പോഴും ചൂസ് ചെയ്യുക അത് തന്നെ എപ്പോളും എടുക്കാറും എനിക്ക് അത് തന്നെയാണ് താല്പര്യം